എനിക്ക് പറഞ്ഞുവെച്ചാൽ അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഒരു എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു കുട്ടിയുടെ ബർത്ത് ഡേ ഫങ്ക്ഷൻ ആയിരുന്നു അപ്പോൾ അവർ ഞാൻ നന്നായി കുക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ എന്നോട് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ശരി അപ്പോൾ ഞാൻ അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ഒരു കുക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് അതൊരു അമ്പതു പേര് അടങ്ങുന്നൊരു ബർത്ത് ഡേ ഫങ്ക്ഷൻ ആയിരുന്നു ചെറിയ ഫങ്ക്ഷൻ ആയിരുന്നു ആയൊരു അവര് പറഞ്ഞത് എന്താന്നു വെച്ചാൽ സദ്യയൊന്നും വേണ്ട നമ്മുക്ക് ബിരിയാണി മതി എന്നാണ് അവർ പറഞ്ഞത് ബിരിയാണി പിന്നെ സ്വീറ്റ് ഐറ്റം ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു അമ്പതു പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ട പാത്രങ്ങളൊക്കെ റെഡി ആക്കി വെച്ചു അതുപോലെത്തന്നെ അവരുതന്നെ അതിന് വേണ്ട സാധനങ്ങൾ ഒക്കെ വാങ്ങി തന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്തത് ബിരിയാണി തന്നെ നമ്മൾ വെച്ചത് അമ്പതു പേർക്ക് ബിരിയാണി വെച്ചു പിന്നെ സ്വീറ്റ് ഐറ്റം ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് കേസരി ആണ് കേസരിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങി പിന്നെ നമ്മള് സ്വീറ്റ് ഐറ്റം ആയിട്ട് കേസരി ഉണ്ടാക്കി ആ പിന്നെ സാലഡ് ഉണ്ടാക്കി ബിരിയാണിക്ക് വേണ്ട സാലഡ് പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്തു വെച്ച ഒരു ഒരു കാഴ്ചയെന്നു പറയുന്ന ബിരിയാണിയുടെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കിയിട്ട് എല്ലാർക്കും ഭയങ്കര ഇഷ്ട്ടവുമായി അന്നത്തെ ദിവസം ബിരിയാണി സ്വീറ്റ് ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു പിന്നെ ഇനി ഒരു ഫങ്ക്ഷൻ വരുകയാണെങ്കിൽ എന്തായാലും ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഒക്കെ ഭയങ്കര ഇഷ്ടവുമായി